ഹലോ ആ ആ ഇത് നമുക്കൊരു കേക്കിന്റെ ആവശ്യത്തിനായിട്ടാണു വിളിക്കുന്നത് ആ ഇത് നമുക്കൊരു ബർത്ഡേ ഫങ്ങ്ഷനു വേണ്ടിയിട്ടുള്ളതായിരുന്നു

ആ ഏതൊക്കെ ഏതൊക്കെ ഏതൊക്കെ ഫ്ലേവറുണ്ടാവും അവിടെ പുതിയതായിട്ട് പുതിയ വെറൈറ്റികള്

അതേലെ അപ്പതിനൊക്കെ റേറ്റുകളേകദേശം എന്തോരം വരുന്നുണ്ടാവും ഓക്കെ ആ ആ അതിപ്പോള് നമ്മുടെ നാട്ടിലുള്ള അത്ര അത്ര റേറ്റ് ഉണ്ടോ ഇവിടെ ഏകദേശം ഒരു ഒരു കിലോയ്ക്കൊക്കെ എണ്ണൂറ് ആയിരം രൂപ താഴെ ഉണ്ടെന്നാണ് അവൈലബിളാണെന്നാണ് എനിക്ക് തോന്നുന്നത്

ഓക്കെ ബർത്ഡേയായിട്ട് ബന്ധപ്പെട്ടിപ്പോഴെന്താണ് എക്സ്ട്രാ നിങ്ങളതിന്റെയകത്തു ചെയ്യ്ന്നേ ഓക്കെ ആ എല്ലാം കൂടെ ചേർത്തൊരു പാക്കേജായിട്ടുതന്നെ റേറ്റ് നിങ്ങള് ചാർജ് ചെയ്യുന്നത് അല്ലേ ഒക്കെ നിങ്ങളപ്പോള് എങ്ങനെയാണ് ഇത് സെർവെയ്യുന്നത് ഓക്കെ അതിനെക്സ്ട്രാ ചാർജായിട്ടെന്തേലും വരുന്നുണ്ടോ ഇത്രയും നേരം സംസാരിച്ചിട്ട് രണ്ട് മിനിട്ടായില്ലല്ലോ അപ്പോള്പ്പിന്നെ നമുക്ക് വേറെ എന്തു ഫ്ലേവറാണ് ഉള്ളത് റെഡ് വെൽവെറ്റ്

ഫ്ളേവറുകളൊക്കെ നിങ്ങളെങ്ങനെയാണ് ഈ നാച്ചുറൽ ഫ്ലേവറുകളാണോ അതോ കെമിക്കൽസാണോ ആഡെയ്യുന്നത് അപ്പോഴീ ഫ്ലേവറ് പൈനാ മാങ്കോയിൽ നിന്നും പൈനാപ്പിൾ നിന്നൊക്കെ ഫ്ലേവറ് നിങ്ങള് ഇവിടെത്തന്നെ ഇണ്ടാക്കുവാണോ അത്യോ പുറത്തു നിന്നും നിങ്ങള് വാങ്ങിക്കുവാണോ

ആ അപ്പോള് അതിനു നിങ്ങള്ക്ക് ഒരുപാട് കോസ്റ്റാവുന്നുണ്ടായിരിക്കുമല്ലോ അത് നിങ്ങളുടെ ബേക്കറി തന്നെ ചെയ്യാണോ അതിനു വേറെ യൂണിറ്റുണ്ടോ ഓക്കെ അപ്പോള് എത്ര സ്റ്റാഫൊക്കെ ഉണ്ടാകും അവിടെ അതെ അപ്പോള് ഈ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കീ കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങള്ക്കാ സ്റ്റാഫിന്റെ സാലറി ബാക്കി കാര്യങ്ങളൊക്കെ മാനേജെയ്യാൻ പറ്റുന്നുണ്ടോ അതു ശരി ഈ കേക്കിന്റെ കൂടെ വേറെ ആഡ് ഓൺ ആയിട്ട് നിങ്ങള്ക്ക് എന്താണു ചെയ്യാൻ പറ്റുന്നെ ആ ഒക്കെ ആ എന്ത് തരം വൈൻ ആണ് കേക്കിനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങള് ഓക്കെ അതും നിങ്ങളവിടത്തന്ന പ്രൊഡ്യൂസ് അത് അല്ലേ ഈ ഗ്രേപ്പ് വൈനെന്നൊക്കെ പറയുമ്പോള് ഗ്രേപ്പൊക്കെ ഒരുപാട് കീടനാശിനികളൊക്കെ അടിച്ചുണ്ടാക്കുന്നതല്ലേ അപ്പോള് അതിന്റെ അകത്ത് അതിൻ്റെ വേറെ എന്തെങ്കിലും സൈഡ് ഇഫക്ടോ കാര്യങ്ങളോ എന്തേലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ഓക്കെ ഓക്കെ നിലവിലിതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമുണ്ടായിട്ടില്ലായിരിക്കുമല്ലെ

ഓക്കെ അപ്പോള് നമുക്ക് ഒന്നാലോചിച്ചിട്ട് ഞാൻ വൈകുന്നേരം വിളിച്ചാല്പ്പോരേ ഓക്കെ നാല് മിനുട്ടായിട്ട് കട്ട് ആയില്ലെന്നു തോന്നുന്നല്ലോ അവിടെ നാലു മിനിറ്റായിക്കാണില്ലായിരിക്കും അല്ലേ പിന്നെ ആ ആ ഓക്കെ വൈകുന്നേരം ആലോചിച്ചിട്ടു വിളിക്കാം കേട്ടോ